ആ ഹലോ സർ പറയൂ എന്താണ് വേണ്ടത് ആണല്ലേ സാറിൻ്റെ പ്രൈസ് റേഞ്ച് എത്രയായിരുന്നു ഇരുപത്തയ്യായിരം ആണല്ലേ ഇരുപത്തയ്യായിരത്തിൻ്റെ ഒരുപാട് ഫോണുകള് നമുക്ക് ഷോപ്പിൽ അവൈലബിളാണ് അപ്പോൾ സാംസങ്ങാണല്ലേ വേണ്ടത് സാറിന് എ എ എത്ര എങ്ങനത്തെ ഫോണാണ് അതായത് സാർ എന്താണ് എന്തിനാണ് മുൻതൂക്കം കൊടുക്കുന്നത് ചില ആൾക്കാര് ക്യാമറ ആയിരിക്കാം ചില ആൾക്കാര് പെർഫോമൻസ് ആയിരിക്കാം

സാംസങ്ങിൻ്റെ ഫോണാണോ വേണ്ടത് ആണല്ലേ അപ്പം സാംസങ്ങിൻ്റെ ഒര് ഗ്യാലക്സി എഫ് എഫ് ഫിഫ്റ്റി ഫോർ എന്ന് പറഞ്ഞൊരു ഫോണുണ്ട് ഏകദേശം ഇരുപത്തിമൂവായിരം രൂപയാണതിന് വരുന്നത് റാമ് എയിറ്റ് ജി ബി റാമ് ഉണ്ട് ഇരുന്നൂറ്റിഎൺപത്താറ് ജി ബി മെമ്മറി ഉണ്ട് ഉണ്ട് അല്ലെ രണ്ടുകളറില് ഉണ്ട് കെട്ടോ ഒന്ന് വൈറ്റ് കളറിലുണ്ട് ഒന്ന് ബ്ലാക്ക് കളറിലുണ്ട് ക്യാമറ അത്യാവശ്യം നല്ല ക്യാമറ ഉണ്ട് നൂറ്റിയെട്ട് മെഗാ പിക്സല് പ്രൈമറി ക്യാമറ ഉണ്ട് പിന്നെ ഫൈവ് ജി ആണ് സെക്കണ്ടറി ക്യാമറ മുപ്പത്തിരണ്ട് മെഗാ പിക്സല് ക്യാമറ ഉണ്ട് പിന്നെ പ്രോസസ്സറൊക്കെ പറയുവാണെങ്കില് എക്സിനൊസിൻ്റെ പ്രോസസറാണ് അത്യാവശ്യം നല്ലൊരു ഫോണ് തന്നെയാണ് കാരണം ഒരുപാട് മൂവിങ്ങുള്ളൊരു ഫോണ് തന്നെയാണ് സാറിന് വാങ്ങാൻ പറ്റിയൊരു റേഞ്ചുവാണ് കാരണം ഇരുപത്തിമൂ മൂവായിരം രൂപയ്ക്ക് നമുക്ക് തരാം ഇപ്പോൾ ഇനി ഇപ്പോൾ ഓഫറൊക്കെയായിട്ട് നോക്കുവാണെങ്കിൽ അതൊരു ഇരുപതിനായിരത്തിന് നമുക്ക് എന്തുചെയ്യാം അത് സാറിന് തരാൻ പറ്റ് പിന്നെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചെങ്കില് ആറായിരം എം ഐ എച് ബാറ്ററി ഉണ്ട് അതിന് അതുകൊണ്ടുതന്നെ ഒരു ടൂ ഡെയ്സോക്കെ നിങ്ങൾക്ക് ബാറ്ററി നിൽക്കും പൈസ കൂടുന്നില്ല ആറാ അതൊരു ബെനിഫിറ്റാണ് ആറായിരം എം ഐ എച് ബാറ്ററിയിള്ളതുകൊണ്ടുതന്നെ നിങ്ങൾക്ക് എന്താ രണ്ട് ദിവസം ചാർജ് നിൽക്കും അതാണയിൻ്റെയൊരു ബെനിഫിറ്റ് രണ്ട് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് പിന്നെ വൺ ഇയർ വാറണ്ടിയുണ്ട് അതൊക്കെ സാംസങ് നൽകുന്ന ഒരു ഓപ്പർച്യുണിറ്റിയാണ് അതുകൊണ്ട് ഫ്രണ്ട് ക്യാമറ മുപ്പത്തിരണ്ട് മെഗാ പിക്സലാണ് ഫ്രണ്ട് ക്യാമറ വരുന്നത് ബ്യാക്കില് മൂന്നുക്യാമറയാണുള്ളത് അത് നൂറ്റിയെട്ട് മെഗാ പിക്സല് എട്ട് മെഗാ പിക്സല് രണ്ടു മെഗാ പിക്സല് അങ്ങനെയായിട്ടാണ് വരുന്നത് അത്യാവശ്യം ഫോക്കസൊക്കെ വരുന്നത് ക്ലാരിറ്റിയുണ്ട് എന്താ ചെയ്യുന്നത് ആ ഇതിൻ്റെ കൂടെ ചാർജറ് ചാർജർ അവൈലബിളാണ് ആ ആ നമ്മളിത് ഉറപ്പിക്കുവല്ലേ എന്നാൽ കൂടിയത് ഒരുപാട് ഐറ്റംസുണ്ട് ഇതങ്ങനെ ഒരുലക്ഷം ട്വൻറി ഫോർ അൾട്രാ ഒക്കെയുണ്ട് ആ മൂവായിരം ഇത് നമുക്ക് ഉറപ്പിക്കുവാണെങ്കിൽ നമ്മുടെ സമയം ആ അതേ ഇത് ഉറപ്പിക്കുവാനെങ്കിൽ നമ്മുടെ സമയം ഏകദേശം സെറ്റാണ് എന്നാൽ ഇത് ഉറപ്പിച്ചാലോ ഇത് എടുത്തൊള്ളൂ കെട്ടോ ആ ഓക്കെ ഓക്കെ ശരി ശരി ശരി ശരി